വ്യാപാരത്തിലും വാണിജ്യത്തിലും ഭാഷ വളരെ സരളമായിരിക്കണം ആവശ്യം വരുന്ന ഉപഭോക്താക്കളെ ആകർഷിക്കത്തക്ക രീതിയിൽ ഭാഷ കൈകാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ട പരിജ്ഞാനം ഉണ്ടായിരിക്കണം അത് വളരെ ശാന്തതയോടും എളിമയോടും കൂടി അത് അവരെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാത്ത രീതിയിൽ അവരോട് സംസാരിച്ച് സംസാരിക്കുക വാണിജ്യവും വ്യാപാരവും പുരോഗമിച്ചുപോകും അതിലൂടെ സമ്പത് വ്യവസ്ഥ നമുക്ക് മെച്ചപ്പെടുകയും ചെയ്യും പല നാടുകളിൽ പല ഡിസ്ട്രിക്റ്റുകളിലും പല ഭാഷകൾ ഭാഷ ഒരു ഭാഷ ആണെങ്കിൽ തന്നെയും പല ശൈലിയിലാണ് അത് സംസാരിക്കുന്നത് അതുകൊണ്ട് അതിൻറ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ കോട്ടയത്ത് കാർ ചെന്ന് തിരുവനന്തപുരത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ അതിൻറ്റേതായ ബുദ്ധിമുട്ട് കേൾക്കുന്നവർക്കും തിരുവനന്തപുരത്തുകാർക്കുണ്ട് തിരുവനന്തപുരംകാർ ഇവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻറ്റേതായ കേൾക്കുന്നവർക്ക് ഇവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും അവനവൻ്റെ സ്റ്റൈൽ അത് അവനവൻ്റെ ശൈലി എല്ലാവർക്കും ഇഷ്ടമാണ് ആ ശൈലിയിൽ അവർ സംസാരിക്കുന്നത് അത് അവരുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായും ഒക്കെ ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്